ഞങ്ങളുടെ വീട്ടിലെ വെള്ളം കിണറിലെ വെള്ളം പൊതുവേ മാലിന്യങ്ങളും പൊടിയോ മറ്റു മാലിന്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടു തന്നെ ഞങ്ങള് പ്രത്യേകിച്ച് അരിക്കുകയോ ശ്രദ്ധീകരിക്കുകയോ ഒന്നും ചെയ്യാറില്ല വെള്ളം അഥവാ ആ ഞങ്ങൾക്കു വല്ല അത്യാവശ്യം വരികയാണെങ്കില് ഞങ്ങള് സെഡിമെന്റേഷൻ എന്നുള്ള പ്രക്രിയയിലൂടെയാണു ഞങ്ങള് ശുദ്ധീകരിക്കാറ് സെഡിമെന്റേഷനെന്നുവച്ചാല് ഈ പൊടിയും വെള്ളം ഒരു പാത്രത്തിലേക്കു ശേഖരിച്ചതിനുശേഷം അതിൻ്റെ പൊടിയും മറ്റു മാലിന്യങ്ങളുമൊക്കെ അതിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടുന്നതുവരെ കാത്തിരിക്കുക എന്നിട്ട് മുകളിലുള്ള ശുദ്ധമായ വെള്ളം മറ്റൊരു പാത്രത്തിലേക്കു മാറ്റിയെടുക്കുക ഇതാണ് സെഡിമെന്റേഷൻ ആ ഒരു രീതിയാണ് അത്യാവശ്യം ഘട്ടങ്ങളില് ഞങ്ങള് ഉപയോഗിക്കാറ് അല്ലാത്ത സമയത്തൊന്നും ശുദ്ധീകരിക്കേണ്ട ഒരാവശ്യം ഞങ്ങളുടെ വീട്ടിലെ കിണറിലെ വെള്ളം വളരെ ശുദ്ധമായതുകൊണ്ടുതന്നെ ചെയ്യാറില്ല നമ്മളുടെ അയൽപക്കങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ കുഴൽക്കിണറുള്ള വീടുകളിലൊക്കെ ഫിൽട്ടറുകള് ഉപയോഗിക്കുന്നുണ്ട് യു യു വി ഫിൽറ്ററുകളും ആറോ ഫിൽറ്ററുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അയൽപക്കത്തുള്ള വീടുകളിലൊക്കെ വളരെയധികം ഇരുമ്പിന്റെ അംശങ്ങളോ അല്ലെങ്കില് മലിനമായ വെള്ളമോ ഒക്കെ ആണെങ്കില് ഫിൽട്ടർ ഉപയോഗിക്കുന്ന വീടുകള് എൻ്റെ അയൽപക്കങ്ങളിലുണ്ട് പൊതുവെ ഞങ്ങളുടെ നാട്ടില്ല് കിണറുകളിലെ വെള്ളം വെള്ളം ശുദ്ധമായതതുകൊണ്ടുതന്നെ പൊതുവെ അരിക്കുന്ന ശുദ്ധീകരിക്കുന്ന രീതികളൊന്നും പിന്തുടരാറില്ല ഇപ്പോള് ഈ പാടങ്ങളിലുള്ള അല്ലെങ്കിൽ കുഴല്ക്കിണറിലെ വെള്ളത്തിലാണ് കൂടുതലും മാലിന്യവും മറ്റ് അശുദ്ധി അശുദ്ധികളും ഒക്കെ ഉണ്ടാവാറ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രദേശം ഒരു മലഞ്ചരിവായതുകൊണ്ടുതന്നെ പക്ഷെ വെള്ളം വളരെ ശുദ്ധമായിരിക്കും പക്ഷെ ഞങ്ങള് വേറെ നേരിടുന്ന ഒരു വെല്ലുവിളി എന്നുവച്ചാല് ഈ കിണര് കുഴിക്കുമ്പോള് പാറ പാറകള് പാറകൾ പൊളിച്ചുമാറ്റേണ്ട ഒരു അത്യാവശ്യം വരുന്നതാണ് ഞങ്ങള് നേരിടേണ്ടി വരുന്ന ഏക വെല്ലുവിളി അല്ലാത്ത വെല്ലുവിളികളൊന്നും വെള്ളത്തിൻ്റെ വിഷയത്തില് ഞങ്ങൾക്കുണ്ടാവാറില്ല പിന്നെ ആ വെള്ളത്തിൻ്റെ കാര്യത്തില് വേനൽക്കാലത്തു വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയാണെങ്കില് അധികം പുറത്തു നിന്നും വെള്ളം ശേഖരിച്ചുകൊണ്ടുവന്ന് ടാങ്കില് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങള് സ്വീകരിച്ചുപോരുന്നത് പിന്നെ മഴവെള്ളം കളക്ട് ചെയ്തിട്ട് ശുദ്ധീകരിക്കുന്ന വീടുകളും ചില ക്രിസ്ത്യൻ വീടുകളൊക്കെ ഞങ്ങളുടെ അയൽവക്കങ്ങളും ചുറ്റുവട്ടത്തുമായിട്ട് ഉണ്ട് പക്ഷേ എല്ലാ വീടുകളും ഈ മഴവെള്ളം സംഭരിക്കുന്ന രീതികളൊന്നും പിന്തുടരാറില്ല കാരണം വെള്ളം പൊതുവേ ഞങ്ങളുടെ പ്രദേശങ്ങളില് സുലഭമാണ്